കേരളത്തിൻ്റതിൻ്റെ കനാലുകളുടെയും പുഴകളുടെയും വൃത്തി നമ്മളത് അധികമായി നോക്കേണ്ടിയിരിക്കുന്നു കാരണം വെള്ളം മോശമായിട്ട് നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു മോശമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളുകൾ വന്നു അടിഞ്ഞു കൂടുക എന്നുള്ളതാണ് പോളകൾ വന്നടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ പുഴകളുടെ ഒഴിക്കില്ലാതാകുകയും മീനുകൾ ചത്തു പൊങ്ങുകയും ചെയ്യും വെള്ളത്തിൻ്റെ നിറം മാറുകയും അത് ഉപയോഗശൂന്യമാകുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നിത്യോപയോഗത്തിനുപയോഗിക്കാൻ പറ്റാതാകാത്തതുണ്ട് നമ്മുടെ ഡ്രസ്സുകൾ കഴുകാനോ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനോ ഒന്നും സാധിക്കാൻ പറ്റത്തില്ല പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുകാരണം ഉണ്ടാകാറുണ്ട് ഡയറിയ പിന്നേ നമുക്ക് ദേഹത്തെല്ലാം ചൊറിഞ്ഞു തടിക്കും അതെല്ലാമുണ്ടാകാറുണ്ട് അപ്പം നമ്മൾ വൃത്തി ഏറ്റവും പുഴകളുടെ വൃത്തി ഏറ്റവും നന്നായി എത്രമാത്രം പറ്റുമോ അത്രയും നന്നായി നോക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അതിലോട്ട് ഇത് വൃത്തി വൃത്തി നമുക്ക് എങ്ങനെ മെച്ചമാക്കാമെന്നു ചോദിക്കുവാനാണെങ്കിൽത്തന്നെ നമുക്ക് പറയാം അതിനു നമുക്ക് പോള ഏറ്റവുമാദ്യം തന്നെ പോളകൾ വന്ന് അടിഞ്ഞു കൂടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം വരുന്ന പോളകളേ ഒഴുക്കി വിടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടിഞ്ഞു കിടക്കുന്ന പോളകളേ എറ്റുത്തു മാറ്റാൻ അത് ഗവണ്മെൻറ്റിൻ്റെ സഹായത്തോടെ നമുക്കെടുത്തു മാറ്റാൻ സാധിക്കും എടുത്തു മാറ്റിയ പോളകൾ ഗവണ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റികൾ വന്ന് എടുത്തു കൊണ്ടു പോയി ഡീകമ്പോസ് ചെയ്യാൻ കൊണ്ടു പോകുകയാണെങ്കിൽ നമുക്കതിന് നടക്കാൻ വഴിയാത്രക്കും തടസ്സമുണ്ടാകത്തില്ല അത് ഇത് മാത്രമല്ല നമ്മൾ വെള്ളത്തിലോട്ട് പലപല സാധകങ്ങളും വലിച്ചെറിയുന്നത് കാണാറുണ്ട് അപ്പം അങ്ങനെ വലിച്ചെറിയാതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ വെള്ളത്തിലേക്കും ശുദ്ധമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റും നമ്മുടെ നിത്യോപയോഗത്തിനു വെള്ളം കിട്ടും നമുക്ക് ഏറ്റവും അത്യ നിത്യജീവിതത്തിലേറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളമെന്നു പറയുന്നത് അപ്പോൾ അതിനേ മലിനമാക്കിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും നമുക്കാഹാരം വെക്കാനോ തുണി അലക്കാനോ ചെടികൾ നനയ്ക്കാനോ ഒന്നിനും വെള്ളമില്ലാതാകും അപ്പം നമ്മളേറ്റവും നന്നായിട്ടു വൃത്തി ശ്രദ്ധിക്കുകയും നമ്മളാൽ കഴിയുന്ന പോലെ നമ്മളാൽ കഴിയുന്ന പോലെയെന്നു വെച്ചാൽ ചെടി വെള്ളത്തിലോട്ട് ഒന്നും വലിച്ചെറിയാതിരിക്കുക വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നേ നടക്കാൻ നടത്താൻ നമ്മൾത്തന്നെ ശ്രമിക്കുക ഇത് വെള്ളത്തിന് അതിന് നാച്ചുറലായിട്ടുള്ള പ്രകൃതിയായിട്ടു തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇവയെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്